ഹലോ ആരാണ് ആ കേൾക്കാം കേൾക്കാം ആരാണെന്ന് പറയൂ അതെ ലൈബ്രേറിയനാണ് സംസാരിക്കുന്നത് അത് ഉടനെ പറയാൻ പറ്റില്ലല്ലോ അത് ഞാൻ നോക്കിയിട്ട് പറയാം ആരുടെയെങ്കിലും കൈവശം ആണോ ഇവിടെ വച്ച് കൊണ്ട് പോയിട്ടുണ്ടോ ഇല്ലയോ ഒന്ന് നോക്കിയിട്ടേ പറയാൻ പറ്റൂള്ളൂ എന്നത്തേക്കാണ് വേണ്ടത് ആ ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളാണ് പക്ഷെ വായനക്കാരുടെ കയ്യിൽ ആയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ സാവകാശം തരണം ആരുടെ കയ്യിലാണെന്ന് എനിക്ക് കണ്ടു പിടിച്ചിട്ട് അവരുടെയിൽനിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ അറിയിക്കാം ഏഹ് അത് ആ ആ മോളുടെ പേരും ഡീറ്റെയിൽസും പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പുസ്തകം എത്തി കഴിയുമ്പൊഴേക്കും ഞാൻ മോളുടെ നമ്പറിലേക്ക് വിളിക്കും വിളിക്കാം അങ്ങനെയേ എനിക്ക് സഹായിക്കാൻ പറ്റൂള്ളൂ മോളെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറ് തരൂ ആ ഫോൺ നമ്പറ് തരൂ

ആ മെമ്പർഷിപ് ഐ ഡിയും പേരും പറയു ഞാൻ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ ഉം എന്നിട്ട് ഉം ആ അറിയിക്കാം ആദിത്യ ആ മൂന്ന് ഒന്ന് നാല് ഓക്കെ ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കുട്ടിയെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ ആ ഓക്കെ